നാലുപേരുടെ ചേർന്ന് കളം വരച്ചു തിരിക്കുന്നതാണ് അക്ക് കളി പിന്നെ പിന്നെ ഫുട് ബോൾ കളി പിന്നെ കബഡിക്കളി ക്രിക്കറ്റ് കളി എല്ലാ കളികളും നല്ല രസകരമായ കളികളാണ് എന്താ പറയുക പിള്ളേർക്ക് അതായത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും കളിക്കാനായിട്ടറിയത്തില്ല എന്താണക്ക് എന്താണ് സാറ്റ് ഒന്നും അറിയത്തില്ല കുഞ്ഞുങ്ങൾക്കൊരു കളികളേക്കുറിച്ചുമറിയത്തില്ല ഇപ്പം ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ മൊത്തവും മൊബൈലിനകത്താണ് കയറി ഇരിക്കുന്നത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അക്കെന്താണെന്നോ സാറ്റെന്താണെന്നോ ഒരു ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ മണ്ണ് വായിലിട്ടൊന്നും ഇറക്കത്തുമില്ല നോക്ക് ഇറക്കിക്കത്തില്ല കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമെന്നും പറഞ്ഞതു കൊണ്ട് നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ നല്ല കുഞ്ഞു പ്രായത്തിൽ ഒത്തിരിയും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിട്ട് അക്ക് കളിക്കാനും സാറ്റ് കളിക്കാനൊക്കെയായിട്ട് നല്ല രസമായിരുന്നു അങ്ങ് അപ്പം നമുക്ക് എന്താ പറയുക നല്ലൊരു സന്തോഷവും നമുക്കൊരു എന്താ സമയം പോകാനും ഒക്കെ നല്ലൊരിതായിരുന്നങ്ങ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അക്കുമില്ല ഒന്നുമില്ല കളിക്കാനും അതുങ്ങൾക്കറിയത്തില്ലങ്ങ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ഫോൺ ഫോൺ കാഴ്ച്കളും വീട്ടിൽ ഇരുന്നു പുരക്കകത്തൊക്കെ ഇരുന്നുള്ള കളികളൊക്കെ ഉള്ളു കുഞ്ഞുങ്ങൾ മണ്ണുമായിട്ടൊന്നും ഇതാകുന്നില്ല കുഞ്ഞുങ്ങൾ കൂടുതലും നമുക്ക് എന്താ പറയുക കുഞ്ഞുങ്ങൾ കൂടുതൽക്കൂടുതൽ കളിച്ചെങ്കിൽ മണ്ണുമായിട്ടിടപെട്ടെങ്കിലേ ഉള്ളു നമുക്കത്തിന് കൂടുതലസുഖങ്ങളൊക്കെ നമ്മളെ വിട്ടങ്ങ് പോകത്തുള്ളു അല്ലാത്തെ പക്ഷം നമ്മൾ കൂടുതലും കൂടുതലസുഖങ്ങളെപ്പോഴുമു ണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു